തീർച്ചയായും ഒരു പ്രദേശത്തിൻ്റെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്താൻ വിനോദ സഞ്ചാരം തീർച്ചയായും സഹായിക്കുന്നുണ്ട് കാരണം ഒരു പ്രദേശത്തെ പ്രദേശത്തോട്ട് വിനോദ സഞ്ചാരികൾ എത്തിച്ചേരുന്നത് അവിടുത്തെ ആ ഒരു പ്രദേശത്തെ മറ്റ് പ്രത്യേകതകളും മറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വിദേശ സഞ്ചാരികൾ ആ ആ ഒരു സ്ഥലത്തോട്ട് എത്തുന്നത് അവർക്ക് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ അവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് പുതുമയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ കൗതുകമുള്ള കാര്യങ്ങളായിരിക്കും അവിടുത്തെ ഭക്ഷണരീതികൾ അവിടുത്തെ വസ്ത്രധാരണങ്ങൾ അതുപോലെത്തന്നെ അവിടുത്തെ സ്ഥലങ്ങൾ മറ്റു കാഴ്ചകളെല്ലാം അവർക്ക് പുതിയ കാര്യങ്ങളായിരിക്കാം അപ്പോൾ തീർച്ചയായും ആ ഒരു വിനോദ സഞ്ചാരികൾ വരുന്നതിലൂടെ ആ ഒരു വിനോദ സഞ്ചാര മേഖല തീർച്ചയായും പുരോഗമിക്കുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക ജോലി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട ആ ഒരു തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ അതും ഒരുപാട് വിനോദ സഞ്ചാരികൾക്ക് ആ സ്ഥലത്തിലോട്ട് ആ സ്ഥലത്തിലോട്ട് എത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു പരിസ്ഥിതി സംരക്ഷണ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നോക്കുന്ന സമയത്തു വിനോദസഞ്ചാരികൾ വരുന്ന സമയത്ത് അവിടത്തെ ആൾക്കാർക്ക് ഒരുപാട് പൈസയും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ലഭിക്കുന്നു പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ അതൊരു ഉൾ കാട് വനം മേഖലയാണ് അപ്പോൾ അവിടെ ഒരുപാട് ആദിവാസി ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്കു വേണ്ട സഹായങ്ങളും മറ്റ് കാര്യങ്ങളും എത്തിക്കുന്നു അതുപോലത്തെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പിന്നീടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരുപാട് ആൾക്കാര് അവിടോട്ട് വരുമ്പോഴാണ് നമ്മള് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പുറംലോകം അറിയുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ തീർച്ചയായും വിനോദസഞ്ചാരമെന്ന് പറയുമ്പോൾ തൊഴിലവസരങ്ങൾ തീർച്ചയായും കൂട്ടുന്നതിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിനോദസഞ്ചാരികളിൽ നിന്ന് നല്ല അനുഭവം മാത്രമേ ലഭിക്കാറുള്ളൂ കാരണം അവർ നമ്മളുമായി സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളുമായിട്ട് അവർ ഒരുപാട് സമയം ചിലവഴിക്കുമ്പോഴും അവർക്കും ഒരുപാട് സന്തോഷമാണ് നല്ല നല്ല നല്ല നല്ല നല്ല കാര്യങ്ങളാണ് അവർ പറയാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളെക്കുറിച്ചുള്ള കാഴ്ച്ചകളും മറ്റ് കാര്യങ്ങളും അവർക്ക് ഒരുപാട് താൽപ്പര്യത്തോടെയാണവർ സംസാരിക്കാറുള്ളത്